എനിക്ക് സമായില്ലാത്തപ്പോഴ് അല്ലെങ്കില് ചേരുവ കുറവുള്ളപ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്നത് ബ്രഡ്ഡും മുട്ടയും തന്നെയാണ് മുട്ട ഓംലേറ്റ് പോലാക്കി ബ്രഡ്ഡിൻറ്റെ ഉള്ളില് വെച്ച് തിന്നുന്നു അല്ലെങ്കില് ബ്രഡ്ഡില് ജാമാക്കി കഴിക്കുക അല്ലെങ്കില് പഴോണ്ടെങ്കില് പഴം വാട്ടുക അല്ലെ പുഴുങ്ങുക ഈ രീതിയിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്